ഹലോ ആ യൂണിയൻ ബാങ്ക് അല്ലേ മാം ഗുഡ്മോർണിംഗ് ആ മാം പിന്നെ എൻ്റെ കുട്ടിക്ക് എഡ്യൂക്കേഷന് വേണ്ടീട്ട് ഒരു ലോൺ വേണമായിരുന്നു മാം അപ്പം പിന്നെ എത്ര പ്രസൻ ആ അവൾ പി ജിക്ക് പഠിക്കുന്നതാണ് മാം അത് ഇവിടെ ബാംഗ്ലൂരാണ് പഠിക്കുന്നുള്ളത് ഇപ്പോൾ അപ്പം നമുക്കും കുറച്ച് ഇതായി മണ്ണിലും കുറച്ചും പ്ര ലോണൊരു എയിറ്റി എയിറ്റിൻ തൗസൻഡ് എയിറ്റിൻ അല്ല എയിറ്റി തൗസൻഡ് ആണ് എയിറ്റ് സീറോ ആ ഹാ ഹാ അതിന് പിന്നെ അത്ര വരും നിങ്ങളുടെ ഇൻട്രസ്റ്റ് എത്രയാന്ന് മാം നയൺ പെസെൻറ്റാ ഓക്കേ അത് പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ജോബ് കിട്ടിട്ടായിട്ട് അതിന്ന് തന്നെ കട്ട് ആയിട്ട് പോവുന്നതല്ലേ മാം ആ ആ ആ ഓക്കേ ഓക്കേ ആ ആ ആ ആ ആ ഓക്കേ ഓക്കേ പിന്നെ അതിന് എന്ത് വേണോച്ചാൽ ആ ആ അത് ഓക്കേ അത് ശരിയാക്കാം മാം പിന്നെ ഇത് എന്താ ഇപ്പം ഡോക്യൂമെൻസ് എന്തെക്കെയാണ് വേണ്ടത് ആ ഫോം നിങ്ങൾ തരുമായിരിക്കും അല്ലേ ഫോംസ് ആ ആ ആ പിന്നെ ഇൻകംൻ്റെ അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ മാം വേണോ അപ്പം ഫസ്റ്റ് ഇൻകമ് ആ ജോ അതെയ ഇൻകമിന് അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലേ ഫസ്റ്റ് തന്നെ ആ ആ അപ്പോൾ ഇത് നമുക്ക് മേഡത്തിനെ എപ്പോൾ കാണാൻ പറ്റും എനിക്ക് സംസാരിക്കാൻ ഡയറക്ട് ആ ആ മോർണിംഗ് ഇപ്പോൾ ടൈം ഉണ്ടാവോ മേഡത്തിന് ഉണ്ടാവോ ആ ഓക്കേ എന്നാൽപ്പിന്നെ ഞാൻ നാളെ ഇല്ലേ മാം നാളെ ഒരു പതിനൊന്ന് മണി ആവുമ്പം ഞാൻ എത്തട്ടെ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ മാം ഓക്കേ